എനിക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം മത്തി അയല ചൂര അങ്ങനത്തെ ചെറിയതരം മീനുകളെയാണ് കൂടുതൽ ഇഷ്ടം സാധാരണ ആളുകൾക്ക് ആളുകൾ സുലഭമായി വാങ്ങുന്നതും മത്തി അയല അങ്ങനത്തെ ചെറിയ മീനുകളാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മീനിനൊക്കെ ഭയങ്കര വിലയാണ് മത്തി കിട്ടണമെങ്കിലും വലിയ മീൻ വാങ്ങുന്നൊരു എമൗണ്ട് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്